സ്റ്റാമ്പുകൾ നമ്മുടെ മഹത്മാഗാന്ധി ഉള്ള കാലം തൊട്ട് ഉള്ള സംഭവമാണ് കാരണം പണ്ട് കാലത്ത് ഒരു ലെറ്ററാണ് പണ്ട് കാലത്ത് നമ്മുടെ പോലെ ഇപ്പോഴത്തെ കാലത്തെ പോലെ ഫോണും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പണ്ട് കാലത്ത് ലെറ്ററെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ ഒക്കെയാണെങ്കിൽ സ്റ്റാമ്പുകൾ ഒട്ടിച്ചിട്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഉള്ള കാലങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഇപ്പോൾ ഉള്ള ജനറേഷനിലെ പിള്ളേർക്കൊന്നും അറിയത്തില്ല അവർക്കൊക്കെ ഇതിനെപ്പറ്റി പഠിക്കാനും അവരെ ഇതിൽക്കൂടെ അറിവ് നൽകാനും വേണ്ടിയിട്ടാണ് ഈ കാലങ്ങളിൽ നമുക്ക് ഇത് ശേഖരിക്കുന്നത് പിന്നെ നാണയങ്ങൾ ആണെങ്കിലും സ്കൂളുകളിൽ ശാസ്ത്രമേള അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഇവയിത് വെക്കുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ എന്തൊക്കെ എന്ത് സാധനമാണ് ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ ഇതിനെ ഇതിനെപ്പറ്റി വിവരങ്ങൾ ഒക്കെ അറിയാൻ വേണ്ടി സാധിക്കുന്നു പിന്നെ പണ്ട് ഓട്ടണ കാലണ അൻപത് പൈസ ഇരുപത്തിയഞ്ച് പൈസ എന്നിവയൊക്കെ അതൊക്കെ അങ്ങനെയുള്ള പൈസകളും കാര്യങ്ങളുമൊക്കെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചത് ഉപയോഗിച്ചത് ഇപ്പം എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്നത്